ഹലോ ഇത് ട്രാൻസ്പോർട്ട് ഏജൻസിയല്ലേ ഇത് ഞാൻ വിളിക്കുന്നന്നത് മെഡിക്കൽ കോളേജ് റോട്ടിലുള്ള ചെവായൂര് ഒരു ഫ്ലാറ്റിന്നാണ് ഞാൻ എന്തിനാണ് വിളിച്ച്ച്ചാൽ ഞാനൊരു ഊബർല് പിന്നോരു കാറ് വിളിച്ചിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ദൂരെ പോകാൻ ആയിരുന്നു അപ്പോൾ ഞാൻ അതിൻറ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് വിളിച്ചത് ഒരു ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ ഒരു ഉത്തരവാദിത്തമല്ലേ നിങ്ങൾ റോട്ടിലിറങ്ങുന്ന വണ്ടികൾടെയൊക്കെ നിലവാരം നോക്കുക എന്നുള്ളത് ആ കാറിൽ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾത്തന്നെ ആ കാറ് പഞ്ചറായി ആ കാറിന്റെ ടയറ് പോയി എന്നിട്ട് ഞങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്രയോ ലേറ്റായിട്ടാണ് ഞങ്ങളെത്തിയത് ഞങ്ങൾക്ക് ട്രെയിനിന് പോകനുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ റയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് എത്തിയാലല്ലേ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുള്ളൂ ട്രെയിൻ മിസ്സായി അനങ്ങനെ പല കാര്യങ്ങളും നടന്നു അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളതിൻറ്റെ പിന്നെ നിലവാരം അതായത് റോട്ടിലൂടെ ഓടുന്ന വാഹനങ്ങളുടെയൊക്കെ നിലവാരം തിട്ടപ്പെടുത്തേണ്ടത് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഏജൻസിടെ ഒരു ഒരു ഒരു അവരുടെ ഒരു ഉത്തരവാദിത്താണ് നിങ്ങളത് ചെയ്തിട്ടില്ല അതെന്തു കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ഞങ്ങൾ ഇവിടെ പൈസ കൊടുത്തു വിളിക്കുന്ന കാറുകളല്ലേ എന്നിട്ടും അതിന്റെ ഓരോരോ നമുക്കാവശ്യത്തിനനുസരിച്ച് ഉപകരിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താണ് അതിന്റെ ഒരു കാര്യം അത് പറയാനായിരുന്നു ഞാൻ നിങ്ങളോട് വിളിച്ചിരുന്നത് അതിൻറ്റെ ഫീഡ്ബാക്ക് ദയവു ചെയ്തിട്ട് ഞങ്ങൾക്ക് തരുക ഇനിയെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള വാഹനങ്ങളുമൊക്കെ ഓടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്